ഇത് എൻ പി എസ് അക്കൗണ്ടിൻ്റെ ഓഫീസ് അല്ലായിരുന്നോ ഞാൻ വിളിക്കുന്നത് എൻ്റെ എൻ പി എസ് അക്കൗണ്ടിന് ഒരു ചെറിയ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഞാൻ ഇപ്പം എൻ്റെ ഈ ഒരു ഫോണിൽ അത് ലോഗിൻ ചെയ്യാൻ നോക്കിയിട്ട് അത് അങ്ങ് ലോഗിൻ ആവുന്നില്ലായിരുന്നു അതിൻ്റെ പാസ്സ്വേർഡ് ഫോഗോട്ടൻ അടിച്ചിട്ട് അതും വരുന്നില്ല അതിൻ്റെ മെസ്സേജൊന്നും വരുന്നില്ലായിരുന്നു അപ്പം ഞാൻ കുറേ ശ്രമിച്ചു നോക്കി ഞാൻ വേറെ ഈ ഫോണിൽ ഒന്ന് ഇത് ലോഗിൻ ആക്കിയിട്ട് വേണം എൻ പി എസ്സിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അ ആ ഞാൻ അത് കുറേ ഞാൻ ഇന്ന് ലോഗിൻ ആക്കാൻ നോക്കി ഈ അക്കൗണ്ടിൽ നിന്ന് പക്ഷേ അത് എന്നിട്ട് ലോഗിൻ ആവുന്നില്ല എന്നിട്ട് അതിൻ്റെ പാസ്വേർഡ് ആണ് ചോദിക്കുന്നത് പാസ്വേർഡ് കറക്റ്റ് ഓർമ്മ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റകത്ത് ഫോർഗേട്ട് പാസ്വേഡ് ഞാൻ നിങ്ങൾ പറഞ്ഞത് പോലെ അടിച്ചിരുന്നു പക്ഷേ അതിൻ്റെ മെസ്സേജൊന്നും ഇതിൽ ഈ നമ്പറിലോട്ട് വരുന്നില്ല

ആ ഓക്കെ ഓക്കെ ബട്ട് ഇതിൻ്റകത്തോട്ട് ആ മെസ്സേജ് വരുന്നില്ല എന്താണ് പറ്റിയെന്ന് അറിയത്തില്ല ഇതിൻ്റെ അകത്തോട്ട് ഫോർഗോട്ടൻ ഞാൻ അടിച്ചു ഫോർഗട്ടൻ അടിച്ചിട്ടും അതിൻ്റെ പാസ്വേഡൊന്നും വരുന്നില്ല ലിങ്കോ ഒരു സാധനങ്ങളും വരുന്നില്ല എനിക്ക് ആ സാധാരണ നമ്മൾ ഒരു ഫോർഗോട്ടൻ അടിക്കുമ്പം എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ വാട്സപ്പിലോ അങ്ങനെ എന്തെങ്കിലും മെയിലായിട്ടോ എന്തെങ്കിലും വരേണ്ടത് അല്ലേ പക്ഷെ ഇതിൽ ഫോർഗോട്ടൻ അടിച്ചിട്ട് എൻ പി എസ് അക്കൗണ്ടിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും എനിക്ക് ഇതു വരെ ആയിട്ടും ലഭിച്ചിട്ടില്ല ആ ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഞാൻ നിങ്ങളെ ഇപ്പം വിളിച്ചിരിക്കുന്നത് നിങ്ങൾ അതിനെ പറ്റി എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു തരണം എനിക്ക് അതൊന്ന് ലോഗിൻ ആക്കിയിട്ട് വേണമായിരുന്നു ഇതാക്കാൻ ഈ അക്കൗണ്ട് ലോഗിൻ ആക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ പാസ്വേഡ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ അതും ഫോർഗെട്ടൻ അടിച്ചു നോക്കി അതിൽ ഫോർഗട്ടൻ പാസ്വേഡ് കൊടുക്കാനാണ് പറയുന്നത് ഫോർഗട്ടൻ അടിച്ചിട്ടും അതിൻ്റെ അകത്തു നിന്ന് ഇതാകുന്നില്ല ഇനി നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതിൻ്റെ ലിങ്ക് വരുന്നില്ല അങ്ങനെയുള്ള സാനങ്ങളൊന്നും വരുന്നില്ല അപ്പം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്തൊന്ന് പറയണം വരുന്നെങ്കിൽ ഓക്കെ ഓക്കെ ആ ചെക്ക് ചെയ്യ്തിട്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയുമായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു ഓക്കെ താങ്ക് യു